എന്റെ തോട്ടത്തില് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പൂക്കളുതന്നെയാണ് പിന്നെ വരുന്നത് ഡിഫറെൻറ് ടൈപ്പിലുള്ള ഫ്രൂട്ട്സ് അതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പൂക്കൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പൂക്കളുണ്ട് റോസ് പൂ പൂവിൽ തന്നെ പലതരത്തിലുള്ള റോസുണ്ട് പല കളറിലുള്ള റോസുണ്ട് പിന്നെ പലതരത്തിലുള്ള പൂക്കളുണ്ട് ജാസ്മിൻ പൂ ഉണ്ട് ഈ പൂക്കളൊക്കെ നമ്മളെ വച്ച് അതൊരു അതില് പൂവിടുന്ന കാണാൻ ഭയങ്കര രസമായിരിക്കും ആ പലതരത്തിലുള്ള കളറ് ഒക്കെ നിന്ന് നമുക്ക് എന്നും ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു വ വല്ലാത്തൊരു സന്തോഷം കിട്ടും പലതരത്തിലുള്ള കളറ് നമ്മള് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു ഒരു ഇതാണ് പൂക്കള് എന്ന് പറയുന്നത് അതുപോലെതന്നെ പൂക്കളുടെ സുഗന്ധം ഭയങ്കര പൂക്കള് വിരിയുന്ന സമയത്ത് ഭയങ്കര ഒരു പൂന്തോട്ടത്തിൽ പോയാൽ തന്നെ നല്ലൊരു മണം നമുക്ക് കിട്ടും അതുപോലെതന്നെ നിറയെ അത് നിറയെ ശലഭങ്ങളെയൊക്കെ ആകർഷിക്കും പൂമ്പാറ്റകൾ ഒരു കിളികളൊക്കെ തേൻ കുടിക്കാൻ വേണ്ടി വരും അപ്പോൾ നമുക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇതായിരിക്കും അതുകൊണ്ട് എനിക്ക് പൂക്കളെ വെച്ചു പിടിപ്പിക്കാനാണ് ഏറ്റവും ഇഷ്ടം അതുകൊ അതുകൊണ്ടുതന്നെ പലതരത്തിലുള്ള പൂക്കള് ഞാന് എന്റെ തോട്ടത്തില് വെച്ചിട്ടുണ്ട് അതുപോലെതന്നെ ഫ്രൂട്ട്സ്ന്നു പറയുമ്പോൾ ഞാന് കുറച്ച് നല്ല വെറൈറ്റീ ആയിട്ടുള്ള ഫ്രൂട്ട്സ് റമ്പുട്ടാന് സപ്പോട്ട കൊയ്യാക്കാ മാങ്ങ അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ്ന്ന് പറയുമ്പോൾ നമ്മള് അവ അവര് നമുക്ക് പുറത്തുന്ന് ഫ്രൂട്ട്സ് വാങ്ങേണ്ട ആവശ്യല്ല നമ്മുടെ വീട്ടിലേക്ക് തന്നെ വെക്കുന്ന ഫ്രൂട്ട്സ്ന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള ഫ്രൂസൊക്കെ കിട്ടും അത് ഫ്രഷായിരിക്കും നമ്മള് ഒരു പെസ്റ്റ്സെഡ്സ് ഒന്നു അടിക്കാത്ത ഫ്രഷായ ഫ്രൂട്ട്സ് ആയിരിക്കും നമ്മള് ഫ്രൂട്ട്സ് ചെടികളൊക്കെ വെച്ചാൽ നമുക്ക് കിട്ടുക അതുകൊണ്ട് ഫ്രൂട്സ് വെക്കാനും എനിക്ക് കൂടുതൽ താല്പര്യമാണ്